ഇപ്പോ എൻ്റെ സെക്കൻഡ് പ്രോഡക്റ്റ്ന്ന് പറയുമ്പോൾ നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ് കെറ്റിൽ ആണ് അപ്പോൾ കെറ്റിലിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എന്താ പറയുക നല്ലൊരു പ്രോഡക്റ്റ് തന്നെയിരുന്നു പിന്നെ ഇതിൻ്റെ ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക നമ്മൾ സാധാരണ നോർമലി യൂസ് ചെയ്യുന്ന പോലെയല്ല ഇലക്ട്രിസിറ്റി ബില്ല് ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ കൂടുന്നുണ്ട് ആ അതിന് പുറമേ ഇപ്പോൾ പറയാണെങ്കിൽ തന്നെ കുഞ്ഞുകുട്ടികൾ ഒക്കെയുള്ള വീട്ടില് യൂസ്ഡ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് കാരണം ഇതിൻ്റെ എന്താ പറയുക ഔട്ട്സൈടും നല്ല രീതിക്ക് തന്നെ ഹീറ്റ് വരുന്നുണ്ട് അപ്പോൾ ഹീറ്റ് വരുമ്പോൾ കുട്ടികളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് കാരണം കുട്ടികളുടെ കൈ പൊള്ളാനും അങ്ങനെയുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഇതീന്ന് വരുന്നുണ്ട് അപ്പോൾ അതൊരു നല്ല മോശം ഇതന്നെയാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് ആയിട്ട് ആണ് എനിക്ക് തോന്നിയത് പിന്നെ ചുരുങ്ങിയ ടൈമിൽ വെള്ളം ചൂടായി കിട്ടുമെങ്കിലും എന്താ പറയുക ഈ ഹീറ്റ് മെയിൻറ്റയിൻ ചെയ്യാൻ കഴിയില്ല പെട്ടെന്ന് തന്നെ തണുത്ത് പോകും പിന്നെ എന്താ പറയുക ഒരു നിശ്ചിത വെള്ളം മാത്രമേ അതിനകത്തേക്ക് കൊള്ളുകയുള്ളൂ നമ്മക്ക് ബൾക്കയിട്ടൊന്നും വെള്ളം ചൂടാക്കാൻ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇതിലുണ്ട്